ഹലോ സാർ എൻ്റെ പേര് അരുൺ ദാസാണ് എനിക്ക് വേണ്ടത് ഒരു രണ്ട് കുപ്പി ജേ ഡിയും മൂന്ന് കുപ്പി ബെക്കാഡിയും രണ്ട് കേസ്സ് ബിയറും വേണം എല്ലാത്തിനും കൂടെ അതെ എല്ലാം കിട്ടുമോ അല്ല സാർ അത്യാവശ്യിമാമായിട്ടും അല്ല ഞങ്ങൾക്കൊരു മാര്യേജ് ഫങ്ഷന് വേണ്ടീട്ടായിരുന്നു ഒരു രണ്ട് കേസ് ബിയറത്യാവശ്യമായിട്ട് വേണം ഞങ്ങളെല്ലാ പ്രാവശ്യോം വരുന്ന ബാറാണിത് അത് ഞങ്ങൾക്ക് തന്ന് തരാൻ പറ്റോ

അപ്പോൾ ജേ ഡിയും ബെക്കാഡിയും എങ്ങനെയാണ് സാർ

ഒരു ബ ഒരുഒരു ബെക്കാഡിക്കും ഒരു ഫുൾ ജേ ഡിക്കും എത്ര ഷോട്ടാ വരുന്നത് ഞാനുദ്ദേശിച്ചതെത്ര ഷോട്ടെന്ന് പറഞ്ഞാൽ എത്ര പെഗ്ഗ് നമുക്കെടുക്കാൻ പറ്റും ഒരു ജേ ഡീന്നും ഒരു ബെക്കാഡീന്നും ഞങ്ങളൊരു എഴുപത് ആൾക്കാർക്ക് വേണ്ടീട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോൾ സാറെങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് കിട്ടുമോ അതെ സാർ അതെ സാർ ഇ ബിയറിൻ്റെ കാര്യം സാറ് പറഞ്ഞില്ലെ ബിയറ് ഏത് ഏത് ബ്രാൻറ്റായിരുന്നാലും കുഴപ്പമില്ല കിങ്റിഫിഷറില്ലെങ്കിൽ അത് വേണ്ട ഹെലിക്കനായാലും മതി അല്ല സാർ ബിയറ് ഏതായിരുന്നാലും കുഴപ്പമില്ലായിരിക്കും കിങ് ഫിഷറ് തന്നെ വേണമെന്നില്ല ഞങ്ങൾക്ക് ഹെലിക്കനായാലും മതി ഹെലിക്കെൻ ഒന്ന് നോക്കീട്ട് പറയൂ സാർ നോക്കു സാർ പ്ലീസ് അത്യാവശ്യമായതോണ്ടാണ് ഞങ്ങൾ ഇന്നേ ദിവസം വന്ന് രണ്ട് പെഗ്ഗെങ്കിലും അടിക്കാറുള്ളൊരു ബാറാണിത് ഈ ബാറിന്ന് ഞങ്ങളെന്നും ഞങ്ങൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല സാർ പക്ഷേ ഞങ്ങളെന്നും വന്ന് രണ്ട് ഒരു ഒരു ഫുള്ള് ജേ ഡിയക്കെ അടിക്കുന്നയാ കൂട്ടത്തിൽ ടച്ചിങ്സും വാങ്ങുന്നുണ്ട് സാറിത് തരാതിരുന്നാൽ ഭയങ്കര മോശമാണ് സാർ നാളെ മുതൽ ഞങ്ങൾ റൂബീലോട്ട് വരില്ല നോക്കീട്ട് പെ അല്ല എനിക്ക് ഇങ്ങനെന്നും അല്ല എനിക്ക് ഇന്ന ബ ബ്രാൻറ്റ് തന്നെ വേണമെന്നില്ല സാർ ഏത് ബ്രാൻറ്റായാലും മതി

സാർ പ്ലീസ് ഞങ്ങൾക്ക് കുടിക്കാതൊരു ദിവസം മുന്നോട്ട് നീക്കാൻ പറ്റില്ല കയ്യൊക്കെ കിടന്ന് വിറക്കയാണ്

ഒരു കെയ്സ് ബിയറിലെത്ര എണ്ണമാണ് വരുന്നത് സാർ നാൽപ്പത് ബോട്ടിലോ അപ്പോൾ ടോട്ടൽ എൺപതെണ്ണം കിട്ടും അല്ലേ സാർ അപ്പോൾ ഒരു കേസിൽ പത്തെണ്ണം കുറയ്ക്കാൻ പറ്റോ ആ അല്ല ഞാൻ വിചാരിച്ചത് സാധാരണ ഒര് കേസിൽ പന്ത്രണ്ടെണ്ണവാണ് വരുന്നത് നിങ്ങൾ നാല്പതെണ്ണം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതിശയമാവുന്നു ഇല്ല സാർ എനിക്ക് എനിക്ക് എഴുപതെണ്ണം വേണം എഴുപതെണ്ണം വേണം ഓക്കെ താങ്ക് യൂ സാർ